എൻ്റെ ഏറ്റവും വലിയ ശക്തീന്നും പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരാണ് കാരണം കൂട്ടുകാർ കൂടെയുള്ളപ്പോൾ നമുക്കെന്ത് കാര്യം ചെയ്യണേലും ധൈര്യം ഒണ്ടാവും അതുകൊണ്ട് എൻ്റെ ഏറ്റവും വലിയ ശക്തീന്നു പറഞ്ഞത് എൻ്റെ കൂട്ടുകാർ തന്നെയാണ് അതേപോലെ എൻ്റെ ബലഹീനതാന്ന് പറയുന്നത് ദേഷ്യപ്പെടലാണ് ഞാൻ പെട്ടെന്ന് ചില കാര്യങ്ങൾക്ക് ദേഷ്യപ്പെടുന്ന ഒരു കൂട്ടത്തിലാണ് അപ്പോൾ എൻ്റെ ശക്തീന്ന് പറഞ്ഞത് കൂട്ടുകാർ എൻ്റെ ബലഹീനതാന്ന് പറയുന്നത് ദേഷ്യവുമാണ്